പണ്ടുകാലത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒരാളെ കാണണെങ്കിലോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങള് നമുക്ക് അറിയിക്കണെങ്കിലോ ലെറ്റർ വഴി ഒക്കെ ആണ് അറിയിച്ചുകൊണ്ട് ഇരുന്നത് അത് ഇവര് രണ്ടുമൂന്നു ദിവസമൊക്കെ ഇതാകുമ്പോളായിരിക്കും നമ്മള് അറിയിക്കുന്ന ആളുടെ കൈയിൽ എത്തുന്നത് ഇപ്പോൾ എന്ന് പറയുമ്പോൾ അങ്ങനെ അല്ല നമുക്ക് ഇപ്പോൾ ഒരാളെ കാണണമെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരാളുടെ അടുത്ത് എന്തെങ്കിലും പറയണമെങ്കിലോ സ്പോട്ടില് ഫോൺ എടുക്കുക വീഡിയോ കോൾ ചെയ്യുക പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കില് വിളിച്ച് അറിയിക്കുക അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഒക്കെ പറ്റും പണ്ട് ആ നമ്മൾ ഈ ബാങ്കില് അന്ന് ഇങ്ങനെ ഒക്കെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര പാട് ആയിരുന്നു ഇപ്പോൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇത് ആക്കുകയും ചെയ്യാം പിന്നെ ഫോണിലൂടെ നമുക്ക് ഫണ്ട് എടുക്കാം ബാങ്ക് ഗൂഗിൾ പേ ചെയ്യാം ഏത് ഏതെങ്കിലും കടെ പോയിട്ട് എന്തേലും സാധങ്ങള് മേടിച്ച് കഴിഞ്ഞാല് അങ്ങനെയൊക്കെ ചെയ്യാം പണ്ട് എന്ന് പറയുമ്പോ കയ്യില് പണം പൈസ ഒക്കെ കരുതി വെച്ചിട്ട് അങ്ങനെ വേണം നടന്നോണ്ട് ഇരിക്കാൻ അങ്ങനെ ഉള്ള കാര്യങ്ങളും പിന്നെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ പണ്ട് കാലത്ത് എന്തെലും ഒക്കെ ആപത്തൊക്കെ വരുമ്പോൾ ആരേലും ഒക്കെ അറിയിക്കണമെങ്കിൽ അത് ആയിരുന്നു സീൻ അറിയിച്ചു കഴിഞ്ഞാലും രണ്ടു മൂന്നു ദിവസം കഴിയുമ്പളേക്കായിരിക്കും ചിലപ്പോൾ ചിലപ്പം അവർ അറിയോള്ളൂ ഇപ്പൊ എന്ന് പറയുമ്പോൾ അങ്ങനെ അല്ല എന്തെങ്കിലും പറ്റി കഴിയുമ്പോൾ കഴിഞ്ഞാലോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോട്ടിൽ തന്നെ അവരെ വിളിച്ച് അറിയിക്കാം അപ്പോൾ അവർക്ക് അത് അറിയുകയും ചെയ്യാം